ഞാൻ ഓൺലൈനിൽ നിന്നൊരു കുർത്തയാണ് ഓർഡർ ചെയ്തത് ഞാൻ ഒരു പത്താം തീയതി ഓർഡർ ചെയ്തു എനിക്കത് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു പന്ത്രണ്ടാം തീയതി കിട്ടുമെന്നായിരുന്നു അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കു കിട്ടിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഭയങ്കര ലാഗ്ഗിങ്ങായിരുന്നു ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ആ അതുപോലെ തന്നെ കൊണ്ട് വന്നപ്പോൾ പാക്കേജൊക്കെ ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു അതിന്റെയുള്ളിൽ ചെറിയ നൂല് പൊട്ടൽ പോലത്തെ ഒരു വലിവ് ഉണ്ടായിരുന്നു ചെറിയ ഭാഗത്ത് ഇങ്ങനെ കീറീട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഞാനൊരു ഫങ്ഷനിട്ടിട്ട് പോയി ഇട്ടിട്ട് പോയപ്പോൾ എല്ലാരും ബാഡ് റിവ്യൂ ആണ് എൻ്റടുത്ത് പറഞ്ഞത് എവിടുന്നെടുത്തതാണ് ഇങ്ങനത്തെ ഒരു കളറാണ് എങ്കിൽ പിന്നെ ഒരു ബ്ലാക്കിലൊരു ഒരു ബ്ലൂ ഷൈൻ വെച്ചിട്ടായിരുന്നു അങ്ങനൊയൊരു കളറായിരുന്നു പക്ഷെ കളർ എനിക്ക് കുഴപ്പമില്ലായെന്നൂ തോന്നി പക്ഷെ എല്ലാവരും പറഞ്ഞു നല്ല മോശമായിട്ടുള്ളൊരു തുണി തന്നെയാണ് ഇത് എന്താ കീറി ഇരിക്കണേ എന്നൊക്കെ പ ഒരു ബാഡ് റിവ്യൂ ആണ് തന്നത്